ഫോട്ടോഗ്രാഫി ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ലൊരു തൊഴിലല്ല അവരത് തൊഴിലായിട്ടല്ല കണ്ടിരിക്കുക അത് അവരുടെ ഒരു ജീവിത അഭിലാഷമായിട്ട് അവരത് ഇഷ്ടത്തോടുകൂടി സന്തോഷത്തോട് കൂടിയത് ചെയ്യും ചുറ്റും കാണുന്നതെല്ലാം അവർ ആ ഒരു ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിക്കും ഫോട്ടോഗ്രാഫിയെന്നു പറഞ്ഞാൽ നമ്മൾ എന്താ ഒരിക്കലും ഒരു കോഴ്സെടുത്ത് പഠിച്ച് ചെയ്യുന്നൊരു കാര്യമല്ല നമ്മുടെ ഉള്ളിൽ നിന്നും ചെയ്യേണ്ടതാണ് അതിന് ഒരു ഫോട്ടോഗ്രാഫിയോട് ഒരിഷ്ടം വേണം അതു ചെയ്യുമ്പോൾ അതായത് ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോഴുള്ള സന്തോഷം വേണം ഈ കാലങ്ങളിൽ വിവാഹ ഫോട്ടോഗ്രാഫി എന്നു പറയണ പണ്ടത്തെക്കാളും വളരെ പുരോഗമിച്ച ഒരു രീതിയാണ് കാരണം പണ്ടൊക്കെ ആൾക്കാർ ഫോട്ടോഗ്രാഫി വിവാഹ ഫോട്ടോഗ്രാഫിയെന്നു പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല വലിയ രീതിയിൽ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കല്യാണ നിശ്ചയങ്ങൾ തൊട്ട് വിവാഹ തീയതിക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഉണ്ട് വിവാഹത്തിന് മുമ്പ് തലേ ദിവസത്തേക്കുള്ള ഫോട്ടോഗ്രാഫി ഉണ്ട് അന്നത്തെ വിവാഹത്തിനുള്ള ഫോട്ടോഗ്രാഫി അങ്ങനെ ഫോട്ടോഗ്രാഫിയോട് ആ ഒരു പണ്ടത്തെ രീതിയിൽ നിന്ന് മാറി വളരെ വികസിച്ച വികസനം ഉള്ള ഒരു ഫോട്ടോഗ്രാഫി രീതിയാണ് ഇപ്പോഴൊക്കെ ഇപ്പോൾ കണ്ടു വരുന്നത് പിന്നെ ഫോട്ടോഗ്രാഫി വിവാഹ ഫോട്ടോഗ്രാഫിയുടെ ഒരു കാര്യമെന്നു പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വരുമാനം കൂടിയ ഒരു മേഖലയും കൂടിയാണ് വിവാഹ ഫോട്ടോഗ്രാഫി എന്നു പറഞ്ഞാൽ പിന്നെ വിവാഹ ഫോട്ടോഗ്രാഫിയിൽ പല വ്യത്യസ്ഥമായ കാര്യങ്ങളൊക്കെ കൊണ്ടു വരാനായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്